ഇത് ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ഓഫീസല്ലെ ഞങ്ങൾക്ക് ഗ്യാസ് തീർന്നിട്ടിന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസമായി ഞങ്ങൾ നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ ആണ്ടേ ഒരു ഡെലിവറിക്കു വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടിട്ടിട്ട് ഗ്യാസ് ബൂക്കിങ്ങിനായിട്ട് കിട്ടുന്നില്ല നിങ്ങളുടെ ആ ഡെലിവറിയുടെ ആ നമ്പറൊന്നു കൂടെ ഒന്നു തരാമൊ അതിലേക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്തെയ്തത് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഗ്യാസ് അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് അത് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അതുപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനായിട്ട് അതിൻ്റെ ഡെലിവറിയുടെ അതിൻ്റെ നമ്പറൊന്നയച്ചാൽ അതിൻ്റെ ആ വിശദ വിശദാംശങ്ങളും ആധാർ നമ്പരും എന്താ തരേണ്ടത് അതെല്ലാം ഞങ്ങൾ തന്നിട്ടുണ്ട് ഇനി അതെന്തുകൊണ്ടാണ് ലഭിക്കാത്തത് താമസമെന്താണ് അതെത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻവേണ്ടി ഒന്നു നിങ്ങളൊന്നു കാര്യമായിട്ട് അതിനൊരു മുൻകൈയ്യെടുക്കുക